വിഭവങ്ങളുടെ ലഭ്യതക്കുറവ് ഉണ്ടായിട്ടില്ല കാരണം ആശുപത്രിയിലൊക്കെ കടന്ന് ചെല്ലുമ്പം ഇന്ന് ഇന്നത്തെ ആശുപത്രികളിൽ നമുക്ക് തീർച്ചയായിട്ടും മരുന്നിനൊക്കെ മരുന്നുകൾക്ക് വലിയ കുറവൊന്നും കാണുന്നില്ല പിന്നെ ഉയർന്ന ചികിത്സ ചിലവ് ഇന്ന് പലപ്പോഴും വേണ്ട മരുന്നുകൾ നമ്മളെ ഹോസ്പിറ്റലിൽ ഇല്ല എന്നുള്ള ഒരു ഒരു സത്യം ഉണ്ട് കാരണം വെച്ചാൽ നമുക്ക് പലപ്പോഴും നമ്മൾ ഹോസ്പിറ്റൽ കിട്ടുന്ന പല മരുന്നുകളേക്കാൾ കുറച്ചും കൂടെ നല്ല മെ പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്നും കിട്ടി രോഗത്തിന് നല്ല മാറ്റം ഒക്കെ ഉണ്ടാവുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം ഉയർന്ന ചികിത്സ ചിലവ് ഉണ്ടാകുന്നുണ്ട് ഉണ്ട് ഇപ്പോഴത്തെ കാലഘട്ടത്തെ രോഗങ്ങളുടെ പ്രയാസം രോഗങ്ങളുടെ കൂടുതൽ കൊണ്ട് ഇന്ന് അങ്ങനെ ഒക്കെ ഉള്ള പ്രയാസം ഉണ്ട് പിന്നെ നീണ്ട ക്യൂ പലപ്പോഴും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ഞങ്ങളൊക്കെ ചെന്നിട്ട് മണിക്കൂറുകളോളം നീണ്ട ക്യൂവിൽ നിന്ന് ഇങ്ങനെയുള്ള ഓരോ വലിയ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്